പണ്ടത്തെ കാലത്ത് മിക്സി ഉള്ളതു കൊണ്ട് മിക്സി ഇല്ലാത്തതു കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് അരിയൊക്കെ അരയ്ക്കാന് ഒരു രണ്ടു മൂന്നു മണിക്കൂർ വേണമായിരുന്നു അതു പോലെ ഗ്രൈൻ്ററില്ലാത്തതു കൊണ്ട് നമുക്ക് ദോശ മാവോ അപ്പ മാവൊക്കെ അരക്കാന് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു ആ അതു പോലെ ഗ്യാസ് സ്റ്റൗ ഇല്ലാത്തതു കൊണ്ട് എന്തോരു ഗ്യാസ് സ്റ്റൗ ഒന്നുമില്ലത്തതു കൊണ്ട് അടുപ്പിൽ കിടന്ന് അയ്യത്ത് പോയി വിറകു പറക്കുവാ ചുള്ളി എടുത്തു കൊണ്ട് ഒടിക്കുകയോ വെക്കുകയോ പാട് എന്തൊരു കഷ്ടപ്പാടാണെന്ന് അറിയാമോ എ പിന്നെ ഓവനിലൊന്നു ബേക്ക് ചെയ്യാനൊക്കെ എന്തോരു പാടുള്ള കാര്യം പണ്ടത്തെ കാര്യമെന്നു പറഞ്ഞാൽ പറയേണ്ട പറഞ്ഞാൽ ഇനി സങ്കടമാകും രാവിലെ എന്തെങ്കിലും വെച്ചു കഴിഞ്ഞാൽ വൈകിയിട്ടാകുമ്പോഴേ വേവമ ഒരാവിലെ ഏഴു മണിക്കു വെച്ചു കഴിഞ്ഞാൽ നമ്മൾ ഉച്ചയാകുമ്പോഴേ നമുക്ക് തിന്നാന് ആകത്തുള്ളൂ അതേ സമയം ഇപ്പം ഇപ്പം മിക്സി ഉണ്ടായതു കൊണ്ടു നമുക്ക് അരക്കാനായാലും ജ്യൂസ് അടിക്കാനായാലും ഗ്രൈൻ്റർ ഉണ്ട് അരി അരയ്ക്കാനായാലും ഗ്യാസ് ഉണ്ട് പെട്ടെന്നു പെട്ടെന്നു വേകാനായാലും സിലിണ്ടർ ഉണ്ടായതു കൊണ്ട് ഗ്യാസ് ഉണ്ടായതു കൊണ്ട് എല്ലാം വെക്കാന് പറ്റുന്നു ഓവൻ ഉണ്ടായതു കൊണ്ട് ബേക്ക് ചെയ്യാന് പറ്റുന്നുണ്ട് മറ്റിന മഷീന് എന്തെല്ലാം നല്ല മാറ്റങ്ങളാണിന്ന് ഇപ്പോഴത്തെ കാലത്ത്